കാലത്തിനനുസരിച്ച് മാറുന്ന വാർത്താ മാധ്യമങ്ങൾ ധാരാളം ഉണ്ട് നമ്മുടെ ഈ നാട്ടില് അത് ഒരു പരിധി വരെ നമുക്കൊരുപാട് ഉപയോഗം നല്ലതാണ് അതും അതിൻ്റെ ഒപ്പം തന്നെ അത് ഒരുപാട് ദൂഷ്യവുമാണ് പത്രം റേഡിയോ ടി വി ഇൻ്റർനെറ്റ് ഇ മെയില് അങ്ങനെ ഇപ്പൊരുപാട് തോതിലുള്ള വാർത്താ മാധ്യമങ്ങൾ വികസിച്ചുവികസിച്ചു വരുന്നൊരു നൂറ്റാണ്ടിലാണു നമ്മളിപ്പോള് ജീവിക്കുന്നത് പണ്ടൊക്കെ നമുക്കു നല്ല നല്ല കാര്യങ്ങളറിയാനും മാത്രമായിരുന്നു പത്രമാണെങ്കിലും റേഡിയോ ആണേലും ടി വി ആണെങ്കിലും ഇൻ്റർനെറ്റ് ആണേലും നമ്മള് ഉപയോഗിക്കുമായിരുന്നുള്ളൂ പക്ഷേ ഇന്നത്തെ തലമുറയിലെ ഒരുപാട് കുട്ടികള് വഴിതെറ്റിപ്പോകുന്നതിനു പ്രധാന കാരണമാണ് ടി വി ഇൻ്റർനെറ്റ് മൊബൈൽ ഫോണ് അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഒരു തന്നെ നമുക്ക് നല്ല കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നമുക്കു നല്ലതായ രീതിയിൽ ഇതെല്ലാം കൊണ്ടുപോകാം പക്ഷെ നമുക്കു തെറ്റായ ഒരു രീതിയിലാണ് ഇതിൻ്റെ എല്ലാം ഉപയോഗമെങ്കിൽ നമ്മുടെ ജീവിതവും തെറ്റായിത്തന്നെ പോകും എൻ്റെ അനുഭവം എന്താണെന്നുവച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളിന്ന് എല്ലാ ദിവസവും പത്രം വായിക്കുമായിരുന്നു അതൊരുപാട് അറിവുകൾ നമുക്ക് പകർന്നുതരുന്ന ഒന്നായിരുന്നു അതുപോലെ തന്നെ റേഡിയോയാണെങ്കിലും പഴയ എഫ് എം ആകാശവാണി അതിന്റകത്തെ എല്ലാ വാർത്തകളറിയുന്നതും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു രാവിലെ എഴുന്നേറ്റ് ചലച്ചിത്ര ഗാനങ്ങളും എല്ലാത്തിനും റേഡിയോ ഓൺ ചെയ്തുവച്ച് അതിനെത്തുടർന്നാണു ബാക്കി പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അതുപോലെയാണു പത്രം പത്രം നമുക്കൊക്കെ വീട്ടില് കിട്ടുമ്പോഴത്തേക്കും ഒരു സമയമാവും പക്ഷെ പത്രത്തിലെല്ലാ വാർത്തകളും നമ്മള് വളരെയധികം ഞങ്ങൾ വീട്ടിൽ നന്നായിട്ടു വായിക്കുമായിരുന്നു ടി വിയൊക്കെ ഞങ്ങളുടെ കുറേ ഞങ്ങളുടെ പഠനത്തിനൊക്കെ ശേഷം കുറേ നാളിനുശേഷമാണ് നമുക്ക് ടി വിയൊക്കെ അവൈലബിളായിവന്നത് ടി വി അന്നും നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന സമയത്ത് ടി വി വളരെ നന്നായിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ആവശ്യമില്ലാത്തതൊന്നും വരികയോ കാണുകയോ ഒന്നും നമ്മള് ചെയ്യില്ലായിരുന്നു അതുപോലെ ഇൻ്റർനെറ്റ് അന്നൊക്കെ കുറച്ചു വീടുകളില് മാത്രം ഉണ്ടായിരുന്ന ഒരു വാർത്താ മാധ്യമമാണ് പക്ഷെ ഇന്നത്തെ കുട്ടികള് പത്രം എന്നു പറയുന്ന സാധനം കാണുകയോ റേഡിയോ കണ്ടിട്ടില്ല അവർക്കാകെ ടി വി ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റൂള്ളൂ പക്ഷെ ഒരുപാട് ഒരുപാട് ഒരുപാട് ദോഷങ്ങളുണ്ട് പല കുട്ടികള് വഴിതെറ്റിപ്പോവുകയും പല പല കണക്ഷൻസിൽ ഏർപ്പെടുകയും എല്ലാം ചെയ്യുന്നത് ഈ മോശമായ അനുഭവത്തിലൂടെയാണ് അതിൽ നല്ലതുമുണ്ട് ചീത്തയും ഉണ്ട് പക്ഷേ നല്ല കാര്യങ്ങൾ നോക്കാതെ എല്ലാവരും ചീത്ത കാര്യങ്ങളാണ് എടുത്തു നോക്കുന്നത് അതിന്നത്തെ കുട്ടികൾക്കു വളരെയധികം ഉള്ളൊരു കാര്യമാണ് എൻ്റെ വീട്ടില് എൻ്റെ കുട്ടികളെന്നൊക്കെപ്പറഞ്ഞാൽ പത്രം വായിക്കുകയോ ഒന്നുമില്ല അവർക്ക് എന്തേലും ന്യൂസറിയണമെങ്കില് അവര് വേണമെങ്കില് ടി വി വച്ചുനോക്കും പണ്ട് ഞങ്ങള് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നും ന്യൂസ് പേപ്പറേന്ന് ന്യൂസ് എഴുതി കൊണ്ടുചെല്ലണമായിരുന്നു എല്ലാ ദിവസവും ടീച്ചേഴ്സതു ചെക്ക് ചെയ്യും ഓരോ കുട്ടികള് ഓരോ ന്യൂസ് എന്നുവച്ചാല് ഒരഞ്ചാറ് ന്യൂസ് വെച്ചു വായിച്ച് എല്ലാ ദിവസവും അസംബ്ളി പോലെ നടത്തിയിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ല ഇന്നത്തെ കുട്ടികള് പത്രവും റേഡിയോ ഒന്നും നോക്കുകയേ ഇല്ല അവരാകെ പത്രം നോക്കുന്നത് എന്തെങ്കിലും പരസ്യങ്ങളോ എന്തെങ്കിലും സിനിമകളുടെ പോസ്റ്റുകളോ അതു മാത്രമാണു പത്രത്തില് നോക്കാറുള്ളു ടി വി ഇൻ്റർനെറ്റ് എന്നു പറയുന്ന ഒരു മാധ്യമം പിള്ളേരുടെ കുട്ടികളുടെ ജീവിതത്തില് വളരെയധികം സ്വാധീനിച്ച ഒന്നാണ് അത് വളരെ അപകടവും ഉണ്ട് അതിന് ഒരുപാട് നല്ല അറിവുമുണ്ട് പിന്നെ നമ്മുടെ ദൂരദർശനെന്നു പറയുന്ന പഴയകാല പരിപാടികള് എന്തു രസമായിരുന്നു എന്നറിയുമോ ഓരോ പരിപാടികള് കാണാൻ ഞങ്ങളുടെയൊക്കെ വീട്ടില് ചെറുപ്പ കാലത്ത് ടി വി ഉണ്ടായിരുന്നപ്പോള് ഈ ചാനലുകളൊന്നും ഉണ്ടായിരുന്നില്ല ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതില് വരുന്ന പ്രോഗ്രാമുകള് കാണാൻ ഞങ്ങള് സമയം നോക്കിയിരിക്കുമായിരുന്നു അത്ര നല്ല മനോഹരമായ പ്രോഗ്രാമുകളായിരുന്നു ഉള്ളത് എല്ലാവർക്കും ഒത്തിരി സന്തോഷമുള്ള പ്രോഗ്രാമായിരുന്നു ആ പ്രോഗ്രാമെല്ലാം കണ്ട് അതിൻ്റെ വാർത്തകളും പ്രോഗ്രാമുകൾ ഒത്തിരി അറിവു തരുന്ന പ്രോഗ്രാമുണ്ട് കിസ്സാൻ കൃഷി കൃഷി ദീപം അങ്ങനെ കുറേ പ്രോഗ്രാമുണ്ടായിരുന്നു ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ ഇന്നത്തെ പരിപാടികളെന്നു പറഞ്ഞത് ഓരോ ചാനലിലും അമിതമായി വിഷം വിളമ്പുകയാണ് ടെലിവിഷൻ്റൊണെ ഓരോ ചാനലിലും പല പല ചാനലുകളുമുണ്ട് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തെലുങ്ക് എന്ത് ചാനലും നമുക്ക് അവൈലബിളാണ് പക്ഷെ എല്ലാ ചാനലുകളിലും നമുക്ക് ഒരുപാട് ദൂഷ്യമുള്ള കാര്യങ്ങളാണ് ഉള്ളത് സീരിയലുകള് കൊലപാതകങ്ങള് എല്ലാം ഈ മാറിമാറി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വീട്ടില് പ്രായമായവര് ഈ പരിപാടി എല്ലാം കണ്ട് ഇരിക്കുകയാണ് പക്ഷെ ദൂരദർശൻ്റെ പഴയകാല പരിപാടികളെന്നു പറഞ്ഞാൽ നമുക്കു മനസ്സിനെ പിടിച്ചിരുത്തുന്ന ഒരു അനുഭവമുള്ളൊരു പരിപാടികളായിരുന്നു നമുക്ക് ഒത്തിരി സന്തോഷം തരുന്ന ജീവിതത്തിൽ സന്തോഷം തരുന്ന ഒരു പരിപാടികളായിരുന്നു പക്ഷെ ഇന്നത്തെ പരിപാടികളെല്ലാം മാറിപ്പോയി ആവശ്യമില്ലാത്ത ചിന്തകളും ആവശ്യമില്ലാത്ത വിചാരങ്ങളും കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും കുത്തിനിറയ്ക്കുന്ന ചാനലുകളാണ് ദൂരദർശനെ അപേക്ഷിച്ച് ഇന്നത്തെ ചാനലുകളെല്ലാം ദൂരദർശൻ്റെ ഒരു പഴയ രീതിയിലേക്ക് ആരും പോവില്ല ഇപ്പോള് ദൂരദർശൻ എന്നൊരു ചാനല് പോലും ഇല്ല അങ്ങനൊരു ചാനല് പോലും നോക്കാൻ പോലും ഇഷ്ടമല്ല കാരണം അവർക്കതിഷ്ടമല്ല എല്ലാവർക്കും ഇന്നത്തെ പരിപാടി മാറ്റിമാറ്റിക്കാണാമല്ലോ റിമോട്ടെടുത്തുച്ച് എല്ലാവരും മാറ്റിമാറ്റി കാണും എല്ലാ പരിപാടികളും കാണും ഓരോ സമയത്ത് ഫുൾ ടൈം എല്ലാ വീടുകളിലും ടി വി ഓണായിരിക്കും പരിപാടികൾ കാണാൻ വേണ്ടി അങ്ങനെ ഒരുപാട് സന്തോഷവും സങ്കടവും നിറഞ്ഞൊരു നൂറ്റാണ്ടിലൂടെയാണ് നമ്മള് ജീവിച്ചുപോകുന്നത് ഈ മാധ്യമങ്ങൾ വഴി പക്ഷെ ദൂരദർശനാണ് ഏറ്റവും ബെസ്റ്റ്